ഇരുപത് രണ്ട് രണ്ടായിരത്തി അഞ്ച് ഇരുപത്തി മൂന്ന് ഏഴ് രണ്ടായിരത്തിഎട്ട് ഇരുപത്തി നാല് അഞ്ച് രണ്ടായിരത്തി ഒൻപത് ഇരുപത്തി മൂന്ന് ഏഴ് തൊണ്ണൂറ്റി നാല് ഇരുപത്തി മൂന്ന് എട്ട് ഇരുപത്തഞ്ച്